ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് ഞാൻ വിളിച്ചത് ഞാൻ ഞങ്ങൾ ഇവിടുത്തെ പുതിയ താമസക്കാരാണ് ഞങ്ങൾ കട്ടപ്പന കട്ടപ്പന സിറ്റിക്കുള്ളിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ രേഖകൾ നിങ്ങൾക്ക് കൈമാറാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് അപ്പം ഞങ്ങളുടെ പുതിയ വില്ലാസം എന്നു പറയുമ്പോൾ വിത്താട്ടിൽ ഹൗസ് കട്ടപ്പന പി ഒ ആറ് എട്ട് അഞ്ച് അഞ്ച് പൂജ്യം അഞ്ച് എൻ്റെ ഫോൺ നമ്പർ എയ്റ്റ് സീറോ നയൻ സീറോ സെവൻ സീറോ സിക്സ് സീറോ ഫൈവ് സീറോ എൻ്റെ ഇമെയിൽ നമ്പർ എബിൻ ബിനു അറ്റ് ജിമെയിൽ ഡോട്ട് കോം സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു